ഹലോ ഇത് അമ്പലത്തിലെ നമ്പൂതിരി അല്ലേ എൻ്റെ മോൾടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആയിരുന്നു അപ്പോൾ അടുത്ത മാസം പതിനാലാം തീയതി ആയിരുന്നു കല്യാണം ഒക്ടോബർ ആ അപ്പം അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ആയിരുന്നു തീയതി ഒന്നും അങ്ങനെ ഒന്നും കുറിച്ചിട്ടില്ല ഞാൻ ആകെ ഇപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇല്ല സമയം ഒന്നും നോക്കിയില്ല അവിടെനിന്ന് നോക്കാൻ പറ്റുമോ അങ്ങനെ ആ ആ ഓക്കെ ഓക്കെ ആ പറയുക എന്തെങ്കിലും കൊണ്ടുവരേണ്ടി ഉണ്ടോ അവിടെ നമ്മൾ ഇപ്പോൾ ആ ആ ആ ഓക്കെ ഓക്കെ അപ്പം അത് വേണമല്ലേ ആ ജാമ്യം നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ അപ്പം അച്ഛൻ അമ്മയോ ഞാനും ഞാൻ ഉണ്ട് ഭാര്യ ഉണ്ട്

ആ ഓക്കെ ഓക്കെ പിന്നെ പുറമേനിന്ന് ആരെങ്കിലും ജാമ്യക്കാർ ആരെങ്കിലും വേണോ വേണമെന്ന് ഇല്ലല്ലോ ഓക്കെ ആ ആ കാലെ എത്തിക്കണം ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അമ്പലത്തിൽ എത്തണം ആ ഓക്കെ പിന്നെ മറ്റേ പന മറ്റേ ഇതില്ലേ മറ്റേ നമ്മുടെ എന്താണ് പറയുക തെങ്ങിൻ്റെ പൂങ്കുല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണോ ആ ഓക്കെ ഓക്കെ എപ്പം ഇല്ല അറി അറിയില്ല അറിയില്ല അയ്യായിരം രൂപയാണോ ഓക്കെ ഓക്കെ മ് തരേണ്ടി വരും അല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ മാല ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം അല്ലേ ആ പുറമേ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഡേറ്റ് നോക്കിയിട്ട് ഞാൻ നമ്പൂതിരീനെ ഞാൻ വിളിക്കാം ആ ഡേറ്റും സമയം കൂടെ നോക്കിയിട്ട് ആ മുഹൂർത്തവും സമയം കൂടെ നോക്കിയിട്ട് ഡേറ്റ് അവർ പറഞ്ഞായിരുന്നു ആ പതിനാലാം തീയതി കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം ഓക്കെ ഓക്കെ മ്